വീഡിയോ ഗെയിമുകളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കളിച്ചിട്ടുള്ളത് ഫ്രീ ഫയറും പബ്ജിയുമാണ് അപ്പം ഏറ്റവും കൂടുതൽ നല്ല ഗ്രാഫിക്സും കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്നതുമായൊരു ഗെയിം ആണ് ഫ്രീ ഫയറ് അത് പിന്നെ പബ്ജിയും പിന്നെ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാർ ഐഡിയിൽക്കൂടെത്തന്നെ നമുക്ക് റിക്വസ്റ്റും ഫ്രെണ്ട് ആക്കി അവരോട് സംസാരിച്ച് കളിക്കാൻ പറ്റുന്നു എന്നത് ഒരു പ്ലെസ് പോയിന്റ് ആണ് അവരോട് സംസാരിച്ച് കളിക്കാൻ പറ്റും പിന്നെ ഒരു ആകർക്ഷണപൂരിതമായ ഗെയിം ആണീ വീഡിയോ ഗെയിമുകൾ വീഡിയോ ഗെയിമുകളെന്ന് പറയുമ്പോൾത്തന്നെ പബ്ജി ഫ്രീ ഫയർ കോൾ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയ ഗെയിമുകളൊക്കെ വളരെ ആകർഷിതമായ ഗെയിമുകളൊക്കെയാണ് കുട്ടികളെ വളരെ പെട്ടെന്ന് ആകർഷിക്കുകയും അവരുടെ മനസ്സിൽ പെട്ടെന്ന് അറ്റാച്ച് ചെയ്യുന്നൊരു ഗെയിമുകളാണ് അപ്പം ഞാൻ കളിക്കുന്നത് ഫ്രീ ഫയറും പബ്ജിയൊക്കെയാണ് അപ്പോൾ എനിക്കെൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുകയും അതിലുപരി കളിക്കുകയും ഒരു എൻ്റർടേയ്ൻമെന്റും ആകും കൂട്ടുകാരോട് സംസാരിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഗെയിമുകൾ അപ്പോൾ അവരോട് നമുക്ക് വാട്ട്സപ്പിൽക്കൂടെ സംസാരിക്കുന്നതിനും അവർ ഓൺലൈനിൽ വേണമെന്ന് ഒരു നിബന്ധന മാത്രമാണ് വീഡിയോ ഗെയിമുകളിലുള്ളത് ഓൺലൈനിൽ വന്ന് കഴിഞ്ഞാൽ സംസാരിച്ച് തന്നെ കൊണ്ട് സംസാരിച്ച് കൊണ്ട് തന്നെ കളിക്കാൻ പറ്റുന്നു എന്ന് അത് വളരെ വലിയ പ്ലെസ് പോയിന്റ് തന്നെയാണ് പിന്നെ പല പല ബന്ധങ്ങൾ നമുക്കത് വഴിയിൽക്കൂടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കൂട്ടുകാർ മാത്രമല്ല പല റാൻഡം ആയിട്ടോ അതായത് അപരിചിതരായിട്ടുള്ള പല കൂട്ടുകാരെ നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ നല്ല ചില കൂട്ടുകാരെ നോക്കി നമുക്ക് സെലക്റ്റ് ചെയ്യാൻ ഓപ്ഷനും ഉണ്ട് അപ്പോൾ അപരിചിതരായ കൂട്ടുകാരെ നമക്ക് അതിൽനിന്ന് കിട്ടുന്ന പല ബന്ധങ്ങളില്നിന്ന് ലോക കാര്യങ്ങളക്കെ ഏകദേശം ലോകത്ത് പോവാനും വേൾഡിലുള്ള അത് നമ്മളെ നമ്മളെ നാട്ടിലല്ലാത്ത ഇപ്പം വേറെ നാട്ടുകളിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് അതിൽ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഗെയിമ് വളരെ വലിയൊരു കൗതുകം നിറഞ്ഞൊരു ചിലത് ഫ്രീ ഫയർ പബ്ജി എന്നൊക്കെ പറഞ്ഞാൽ സാഹസികമായ കാര്യങ്ങളൊക്കെയാണ് അത് സാധിക്കുന്നത് അതായത് അഡ്വെഞ്ചേസ് ആ ഒരു രീതിക്കാണ് സാധിക്കുന്നത് ഫ്രീ ഫയർ പബ്ജി അപ്പം അതിനകത്ത് പലതും കുട്ടികളെ പെട്ടെന്ന് പെട്ടെന്ന് ആകർഷിക്കുന്ന പല പല ഗ്രാഫിക്സുകൾ കൊണ്ട് വന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോ ഗെയിമുകൾ അത്ര ഇഷ്ടപ്പെടുന്നത് വീഡിയോ ഗെയിമുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു നല്ലൊരു കാര്യങ്ങൾ തന്നെ പറയാനുള്ളത് പല പല കൂട്ടുകാരെ കിട്ടുന്നുണ്ട് ഫ്രീ ഫയർ പബ്ജി പോലത്തെ പല ഗെയിമുകളിലും സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതിനുപരി ഇപ്പോൾ പല പല അപ്ഡേഷനുകൾ വന്നാണ് അവരത് ചെയ്ത് കളയുന്നത്